മലയാള ഭാഷ വേറൊരു ഭാഷയിലോട്ടോ അല്ലെങ്കിൽ തിരിച്ച് വേറൊരു ഭാഷ മലയാളത്തിലോട്ടോ വിവർത്തനം ചെയ്യാറുണ്ട് ഇപ്പോള് ഗൂഗിൾ ട്രാൻസിലേറ്റ് ഉള്ളതു കൊണ്ട് അതിൻ്റെ സഹായത്തോടെ വാക്കുകൾ കിട്ടാറുമുണ്ട് കാരണം ചില സാഹചര്യങ്ങളിൽ ചില വാക്കുകളോ അല്ലെങ്കിൽ ചില ഉപയോഗങ്ങളോ വായിച്ചാൽ മനസ്സിലാവാതെ വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോള് ആ സമയം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി ഈ വാക്കുകള് ഇപ്പോള് മലയാളം വേറൊരു ഭാഷയിലോട്ടോ അല്ലെങ്കിൽ വേറൊരു ഭാഷയിലുള്ള വാക്കോ ഉപയോഗങ്ങളോ മലയാളത്തിലോട്ടോ മാറ്റിയത് ഒരു വളരെ ഒരു നല്ലൊരു സഹായം ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് ഡെയിലി ലൈഫിൽ ഇത് എനിക്ക് ആപ്ലിക്കബിളാണ് കാരണം ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളില് ചില വാക്കുകൾ കിട്ടാതെ ആകുമ്പോൾ ട്രാൻസിലേറ്റിലിട്ടു തന്നെയാണ് ഈ വിവർത്തനം ചെയ്യുന്നത് അതിൻ്റെ അനുഭവം നല്ലൊരു അനുഭവമാണ് കാരണം ഇപ്പോള് മലയാമല്ലെങ്കിൽ കൂടി വേറെ ഏതെങ്കിലും ഭാഷ സംസാരിക്കുമ്പോഴോ വേറെ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യേണ്ടി വരുമ്പോഴോ വിവർത്തനം ചെയ്യാറുണ്ട്